കേരളത്തിന്റെ പ്രധാന കായിക ഇനങ്ങളെന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ഫുട് ബോൾ ടെന്നീസ് ബാഡ്മിൻ്റൺ പിന്നെ അത് കൂടാതെ വള്ളം കളി ഉണ്ട് പിന്നെ നമ്മുടെ കുറെ നാടൻ കായിക ഐ കായിക ഇനങ്ങളും ഉണ്ട് ഫുട് ബോളിനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീം ഇന്ത്യൻ ഇന്ത്യൻ ടീമിന് പോയി നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഫുട് ബോൾ തന്നെയാണ് കാര്യമായിട്ട് കേരളത്തിൽ ഉള്ള ഒരു ഐ എം വിജയൻ ഫൂട് ബോൾ കളിയുടെ പ്രത്യേ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് പിന്നെ കായിക ഇനങ്ങൾ ലോങ്ങ് ജമ്പിനാണെങ്കിൽ അഞ്ചു ബോബി ജോർജ് പിന്നെ അവരൊക്കെ വളരെ പ്രശസ്തരായ കായിക കായിക താരങ്ങളാണ് കേരളത്തിലെ